ഞാൻ പരീക്ഷണത്തിൽ ഏറ്റവും വെല്ലുവിളിയായി തോന്നിയത് പാനി പൂരി എന്ന് പറഞ്ഞ ഒരു സ ഐറ്റം ഉണ്ടാക്കാൻ അഞ്ച് പൂരി പാനി ഉണ്ടാക്കാൻ എളുപ്പമാണ് പൂരി ഉണ്ടാക്കാൻ റവ വച്ചിട്ടാണ് നമ്മളാ പൂരിടെ മാവ് കുഴക്കേണ്ടത് റവയും ഉപ്പും വെച്ചിട്ടാണ് സോ റവ പരത്തിയെടുക്കാനാണ് പറഞ്ഞത് ഭയങ്കര പാടേറിയ ഒരു ജോലിയാണ് കാരണമെന്നു വെച്ച റവ പരക്കില്ല ഭയങ്കര കട്ടിയേറിയ സാധനമാണ് സോ അത് നമ്മൾ ഇങ്ങനെ പരത്തി പരത്തി ഭയങ്കര ശക്തി കൊടുത്ത് പരത്തണം എന്നാലേ അത് തിൻ ഷീറ്റ് പോലെ വരുള്ളൂ പ്പ് പരത്തിയെടുക്കാൻ കുറെ സമയമെടുക്കും എനിക്ക് ഞാൻ കുറെ നേരം പരത്തി പരത്തി നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ സാധനം ആയിട്ട് തോന്നി അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് മോമോസ്ന്നു പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് അതിനകത്ത് നമ്മളെ അതിൻ്റെ മാവ് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഫുള്ള് മൈദ വെച്ചിട്ട് അപ്പോൾ അത് നമ്മൾ അതും നമ്മൾ പരത്തി എടുക്കുമ്പോൾ നമുക്ക് വട്ടം വട്ടം ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം സൊ അത് പരത്തിയെടുക്കാൻ എന്താന്ന് വെച്ചാൽ ഈസി ആയിട്ട് പരക്കുമെങ്കിലും പക്ഷേ അത് മൈദയായ കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ പരത്തണ സാധനത്തിലും ഒക്കെ ഒട്ടിപ്പിടിക്കും സൊ അത് പരത്തി എടുക്കാൻ കുറേ അധികം ബുദ്ധിമുട്ടുണ്ട് പരത്തി വരുമ്പോൾ ആ പരത്തിയ മാവിൽ ഓട്ടകൾ വീഴും അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട് അതു കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും ഉണ്ടയാക്കിയിട്ട് വീണ്ടും അത് പരത്തണം പക്ഷേ ഞാൻ ഇതിന്നൊക്കെ പഠിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ക്ഷമയോടെ പതുക്കെ ചെയ്താൽ എല്ലാതും നമുക്ക് ശരിയായിട്ട് കിട്ടും പക്ഷേ നമുക്ക് അതിന് വേണ്ടത് ക്ഷമയാണ് നമ്മൾ ഈ മോമോസ് ഉണ്ടാക്കണതിൻ്റെ മാവ് ക്ഷമയോടെ അത് ഉണ്ടാക്കിയാൽ നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ക്ഷമയാണ് എല്ലാത്തിനും വേണ്ടത്